എനിക്ക് ഡ്രോയിംഗ് ക്ലാസ്സിൽ പൊതുവെ സാധാരണ വന്നോണ്ടിരിക്കുന്നത് സാറ് ബോർഡിൽ എന്തെങ്കിലും വരയ്ക്കുകയും അങ്ങനെ എന്തേലും കാണിച്ചിട്ട് അതില് ആ ഒരു സംഭവം എങ്ങനെയാണോ വരക്കണ്ടേ അങ്ങനെ പറഞ്ഞ് തന്നിട്ട് ക്ലാസ്സ് എടുപ്പിക്ക്യാണ് പതിവ് സാധാരണ ഇപ്പോൾ നമുക്ക് ഒരു എന്താണോ വരയ്ക്കണ്ടത് ആ ഒരു സാധനം സാറിനോട് സർ നമ്മളോട് ഒരു അഭിപ്രായം ചോദിച്ചിട്ടാണ് നമ്മളോട് എന്താണ് വരക്കണ്ടത് എന്നൊക്കെ ചോദിക്കും അപ്പൊ നമ്മടെ അഭിപ്രായത്തിനനുസരിച്ചാണ് സാറ് നമുക്ക് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് തരുന്നതൊക്കെ അപ്പോ സാറ് പൊതുവെ ബോർഡിൽ വരച്ചിട്ടുള്ള സാധനങ്ങളാണ് നമ്മൾ വരച്ചു പഠിച്ചിട്ടുള്ളത് ബോർഡിൽ ഒരു പ്രൊജക്റ്റ് ഒരു ഒബ്ജെക്ടിനെ നമുക്ക് വരച്ച് കാണിച്ച് തന്നിട്ട് അത് നമ്മൾ നോക്കി വരയ്ക്കാറായിരുന്നു സാധാരണ ചെയ്യാറ് പിന്നെ കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ കുറച്ച് ബീച്ച് മാറി മാറി പിന്നെ സർ ഓരോ വസ്തുക്കളെ കാണിച്ച് തരികയും അതിനെ നോക്കി വരയ്ക്കാൻ പറയുകയും ഒക്കെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ഇടക്ക് നമുക്ക് ഒരു ബോർഡിൽ ഒരു ബോർഡ് തുടയ്ക്കുന്ന ഡസ്റ്റർ ഒക്കെ വെച്ച് വരക്കാൻ നോക്കി വരക്കാൻ പറയും പിന്നെ ബോക്സ് അങ്ങനെ ഓരോ സാധനങ്ങളും നോക്കി വരച്ച് കൊണ്ടിരിക്കാൻ നമ്മളോട് പറയും അങ്ങനെ ഇമ്പ്റൂവ് ചെയ്ത് ഇമ്പ്റൂവ് ചെയ്ത് ഓരോ വസ്തുക്കളെ നമുക്ക് കാണിച്ച് തന്ന് വരപ്പിക്കാൻ തുടങ്ങി ഞാൻ അങ്ങനെയൊക്കെ വരച്ച് നോക്കിയിട്ടുണ്ട് എനിക്ക് വരക്കുന്നതിൽ വലിയ ബുദ്ധിമുട്ട് ഒന്നും ഇല്ലായിരുന്നു ഞാൻ അത്യാവശ്യം നന്നായിട്ട് തന്നെ വരച്ചിരുന്നു